ഹലോ ആരാണ് ആ വൈഷ്ണവി പറയു ആ കടയിൽ കുറച്ച് പണി നടക്കുകയായിരുന്നു ഇത് ഒന്നൂടെ ഒന്ന് മെയ്ന്റനൻസിന്റെ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പം രണ്ടൂ മൂന്നു ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു എ ഇപ്പം തുറന്നിട്ടുണ്ട്

ആ അ ക്യാമലിന്റെ വന്നിട്ടുണ്ട് ആ ഏ ഫോർ ഷീറ്റിന് ഇപ്പം വില കൂടിയിട്ടുണ്ട് അറുന്നൂറ് രൂപ ആയിട്ടുണ്ട്

ബാക്കി എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട് ഇപ്പം സ്കൂളൊക്കെ തുറന്ന ടൈമായത് കൊണ്ട് ഇത്തിരി അ അത്യാവശ്യം സാധനങ്ങൾക്ക് ഒക്കെ റേറ്റ് കൂടിയിട്ടുണ്ട് ജോമെട്രി ബോക്സിന് അമ്പത് രൂപയായിട്ടുണ്ട് ആ അമ്പത് പത്ത് രൂപ കൂടി മോളെ ആ ഇവിടെ അ ഗോപാലനുണ്ട് അവനെ പറഞ്ഞു വിടാം ആ രാമു ആയിരുന്നു ഗോപാലിനെ ഇപ്പം പുതിയതായിട്ട് എടുത്തതാണ് രാമുവിന് പണിയൊന്നും അറിയത്തില്ല അവൻ ചുമ്മ പണിയൊന്നും എടുക്കാതെ കറങ്ങി നടപ്പായിരുന്നു അതുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടു ഞാൻ ആ ശരി ശരി ഞാൻ എഴുതി വച്ചേക്കാം എന്തായാലും

വേറെ എന്തെങ്കിലും വേണമെങ്കിലും പറഞ്ഞാൽ മതി ഇപ്പം ഓർമ്മയില്ലെങ്കിൽ പിന്നെ പറഞ്ഞാലും മതി ഞാൻ എടുത്ത് വച്ചോളാം അല്ലേൽ മോളെനിക്ക് ഒരു കാര്യം ചെയ്യുക വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാലും മതി ആ പറഞ്ഞു തരാമല്ലൊ എട്ട് പൂജ്യം എഴുതുകയാണോ ആ ഓക്കെ എട്ട് പൂജ്യം മൂന്ന് അഞ്ച് രണ്ട് നാല് ഒൻപത് പൂജ്യം പൂജ്യം ആറ്

ആ ശരി ശരി അപ്പോൾ ഒന്ന് വാട്സപ്പ് ചെയ്താലും മതി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടൊ ആ ഇട്ടേക്കാം ഇട്ടേക്കാം എന്തായാലും ഇപ്പം മെയ്ന്റെനൻസ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് ഞങ്ങൾ പുതിയ ഒരു ബ്രൗഷറക്കെ ഇറക്കിയിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇട്ടേക്കാം മോൾ ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് സഹായിക്കുമെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു